ഞാൻ ട്രാവല് ചെയ്ത് വന്നത് കൊറിയക്കായിരുന്നു ഞാൻ എനിക്ക് ട്രാവല് ചെയ്യാൻ ഭയങ്കര ഇഷ്ടട്ടമുള്ളത് കൊണ്ട് തന്നെ കുറെ സ്ഥലങ്ങള് കണ്ടു കാശ്മീർ അങ്ങനെ കുറെ സ്ഥലങ്ങള് പോയിട്ടുണ്ട് അതുപോലെ തന്നെ പോകാനാഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു കൊറിയ ഭയങ്കര ഡിഫിക്കൽറ്റായിട്ടുള്ളൊരു ഭാഷ തന്നെയായിരുന്നു അവിടെ നമുക്ക് പെട്ടന്ന് അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവാത്തതും നമ്മള് പറയുന്നത് അവർക്ക് മനസ്സിലാവാത്ത ഒരു ഭാഷയായിരുന്നു പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ ഗൂഗിൾ ഫോം വച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറച്ചൊക്കെ മനസ്സിലാക്കി പിന്നെ കൂടുതൽ ഇംഗ്ലീഷില് സംസാരിക്കണവരുള്ളത് കൊണ്ട് രക്ഷപെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഇംഗ്ലീഷില് സംസാരിക്കണവരുണ്ടായിരുന്നു അപ്പം അവരിൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി ബുദ്ധിമുട്ടിയോന്ന് ചോദിച്ചാൽ ഏകദേശം കുറച്ചൊക്കെ ബുദ്ധിമുട്ടി ഭാഷയറിയാണ്ട് പിന്നെ അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊന്നും നമ്മൾക്ക് പറ്റിയ ഫുഡ്ഡല്ല നമ്മളിപ്പോൾ ഇന്ത്യൻസ് നമ്മള് കഴിക്കുന്നതെന്താണെന്ന് വച്ചാൽ സദ്യ അല്ലങ്കിൽ ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളക്കെ കഴിക്കും അവിടെ പോയിട്ട് ഇലക്കറികള് അങ്ങനത്തേക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു മാതിരി ഒര് ഇഷ്ട്ടക്കുറവൊക്കെ ഉണ്ടാവും ഫസ്റ്റ് ഞാൻ പോയപ്പോൾ അങ്ങനെ ആയിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഞാൻ അവിടെ എത്തി എവിടെ അവിടെ എത്തിയപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് പോയത് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൊറിയൻ ഭാഷ അറിയില്ല മെയ്നായിട്ടുള്ള പ്രശ്നായിരുന്നു പോയി പോയെല്ലാവരിനേയും വിസിറ്റ് ചെയ്തു കണ്ടു കുറച്ച് പേരുടെ അടുത്ത് കൊറിയയൊക്കെ സംസാരിച്ചപ്പോൾ കുറച്ച് സംസാരിച്ചു കുറച്ച് എൻ്റെ ഫ്രണ്ടിന് കുറച്ചറിയാവുന്ന കൊണ്ട് അവള് ട്രാൻസ്ലേറ്റ് ചെയ്തു പിന്നെ ഗൂഗിൾ ഫോം വച്ചിട്ട് ഞാനും ട്രാൻസ്ലേറ്റ് ചെയ്തു പിന്നെ കുറച്ച് പേര് ഇംഗ്ളീഷൊക്കെ സംസാരിച്ചങ്ങനെ ഒന്ന് സെറ്റായി അവിടെ ഒരു റൂമൊക്കെ എടുത്ത് ഒന്ന് സെറ്റായി ഏകദേശം ഒര് ലെവലിലെത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടീട്ട് പുറത്ത് പോയതായിരുന്നു അവിടെ നല്ലൊരു ഹോട്ടല് നോക്കി പുറത്ത് പോയി പക്ഷെ ഒരുമാതിരി ഫുഡ്ഡായിരുന്നു കഴിക്കാൻ നമ്മുടെ വായില് വക്കാൻ പറ്റാത്ത ഫുഡ്ഡായിരുന്നു രണ്ട് ദിവസം ഞങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു രണ്ട് ദിവസം നിന്നില്ല അന്നത്തെ അന്നത്തെ രാവിലെ ഞങ്ങള് ഫുഡ് കഴിച്ച അവിടുന്നായിരുന്നു ഉച്ചക്കും ഫുഡ് കഴിച്ച അവിടുന്നായിരുന്നു രണ്ടും തൃപ്തിയല്ലാത്ത കൊണ്ട് തന്നെ അവിടുന്ന് പോരേണ്ടി വന്നു കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് അവിടന്ന് വരുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് കണ്ട് അങ്ങനെ അവിടന്ന് റിട്ടേൺ ഞങ്ങള് വരികയായിരുന്ന് വെറുതെ ട്രാവല് ചെയ്യാൻ ഇഷ്ട്ടമുള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് നേരെ ഞങ്ങള് പിന്നെ വിട്ടത് ബാംഗ്ലൂർക്കായിരുന്നു അവിടെ അവടെ കുറച്ച് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ പിന്നെ പോയത് അങ്ങോട്ടായിരുന്നു